അതെ ആരാണ് സംസാരിക്കുന്നത് ആ ഓക്കെ എന്താണ് പേര് ആ എന്നായിരുന്നു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഒന്ന് റെക്കോർഡ് നോക്കട്ടെ കേട്ടോ ആ റിഫ്രാക്റ്റീവ് സർജറി ആണോ പറഞ്ഞിരുന്നത് ആ ആൾക്കിപ്പോൾ എങ്ങനെയുണ്ട് ആ അത് ജസ്റ്റ് ഐ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി തന്ന ഡ്രോപ്ലെറ്റ്സ് ആയിരുന്നു ആ അതെ അതെ കണ്ണിന് സൈഡ് ഇപ്പോൾ എത്ര ആഴ്ച ഒഴിക്കുന്നു എത്ര ദിവസമായി ഒഴിക്കുന്നു ആ ഓക്കെ നമുക്കിപ്പോൾ നാളെ ആ രണ്ടും കൂടി ആ നാളെ ഈ ആഴ്ച എന്തായാലും പറ്റില്ല പോരാഞ്ഞ് നിങ്ങൾ അഡ്മിറ്റ് ആയിട്ടില്ലല്ലോ ആ അഡ്മിറ്റ് ആവാൻ നോക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഓക്കെ ആ നെക്സ്റ്റ് വീക്ക് ഫസ്റ്റ് ആയിട്ട് ഒന്ന് വന്ന് കാണാൻ പറ്റുമോ ആ വൺ വീക്ക് അഡ്മിറ്റ് ആവേണ്ടി വരും കാരണം നമുക്ക് കംപ്ലീറ്റ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം നടത്തണം അത് കഴിഞ്ഞിട്ട് ഏകദേശം ആ അതെ അതെ വൺ വീക്ക് എന്തായാലും എടുക്കും എക്സ് റേ കാര്യങ്ങൾ ഐ ടെസ്റ്റുകൾ ഉണ്ടാവും കുറേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സർജറി ആയതുകൊണ്ട് ആ എത്രയാണ് ഏജ് ആ സെവെൻറ്റി ഫോർ അപ്പോൾ നമുക്ക് ഒരു ഹൈ റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ റിസ്ക് എടുക്കാണ്ട് വേണം അപ്പോൾ നമുക്ക് എന്തായാലും ബ്ലഡ് ടെസ്റ്റ് എന്തായാലും നോക്കണം ആ ഓക്കെ ആ ഐയിൻ്റെ പ്രഷർ കുറച്ച് കൂടുതലാണ് ഓൾറെഡി അപ്പോൾ നമുക്ക് ഓ ഡയബറ്റിക്കിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഓവർ ആണോ ഹൈ ആണോ ലെവൽ ആ നമുക്ക് വാറണ്ടി സപ്ലിമെൻറ്റിൻ്റെ ഏതെങ്കിലും നോക്കിനോക്കാം നമുക്ക് എന്തായാലും ഹെവി റിസ്ക് എടുക്കാൻ പറ്റില്ല ഇത്ര ഏജിൽ അതുകൊണ്ടാണ് എന്തായാലും നെക്സ്റ്റ് വീക്ക് ഫസ്റ്റ് ആയിട്ട് വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ ആ ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്യാം ആ ഞാൻ എന്തായാലും ആ നെക്സ്റ്റ് വീക്ക് പക്ഷേ ഒരു കാര്യം പറയാം നെക്സ്റ്റ് വീക്ക് അഡ്മിറ്റ് ആയി നെക്സ്റ്റ് വീക്ക് തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റണമെന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള വീക്കേ നമുക്ക് നടക്കുളളൂ ആ പേഷ്യൻറ്റിൻറെ ഒപ്പം ഒരാളേ നിൽക്കാൻ പാടുള്ളൂ കേട്ടോ ആ ഒരാൾക്കേ പറ്റുള്ളൂ ആ ഓക്കെ അങ്ങനെ നിന്നാൽ ഓഫീസിലേക്ക് വിളിച്ച് ഒന്ന് അപ്പോയിൻമെൻറ്റ് എടുത്താൽ മതി

ഉം ഓക്കെ